ഈ അതെ മാധ്യമങ്ങളിലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും മലയാള ഭാഷയക്ക് മതിയായ പ്രാതിനിധ്യം ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ യെസ് അതെ ഞാൻ കരുതുന്നുണ്ട് അതായത് ഈ ഈ നമ്മുടെ അതേ ലാംഗ്വേജിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഓരോ വിദ്യാഭ്യാസ സമ്പ്രദായം വിദ്യാഭ്യാസം നമ്മുടെ മദർടങ്ങിൽ പഠിപ്പിക്കുമ്പോഴാണ് ആൾക്കാർ കൂടുതലും മനസ്സിലാക്കാനായിട്ടൊക്കെ പറ്റുന്നത് മലയാള ഭാഷയ്ക്ക് പ്രാധാന്യം ഉണ്ടെന്ന് ചോദിച്ചാൽ അത് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് മാതൃഭാഷയിൽ ഒരു കുട്ടി മാതൃഭാഷയിൽ അവൻ്റെ ഓരോ വിഷയങ്ങളും പഠിക്കുമ്പോൾ തന്നെ അവന് കൂടുതലും നന്നായിട്ട് നല്ല രീതിക്ക് ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കാനായിട്ടൊക്കെ പറ്റും അതുപോലെ തന്നെ അതിന് വളരെ വലിയ ഒരു പ്രാധാന്യം ഈ മാതൃഭാഷ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലുണ്ട് മാധ്യമങ്ങളിൽ ഇപ്പം മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മലയാളം ലാംഗ്വേജ് തന്നെയാണ്

അത് വളരെ നല്ല രീതിക്ക് എല്ലാവർക്കും മനസ്സിലാകാനായിട്ടൊക്കെ പറ്റും മലയാള ഭാഷയില് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കും എല്ലാർക്കും മനസ്സിലാക്കാനും എല്ലാം സാധിക്കുകയും ചെയ്യും എല്ലാം പറ്റുകയും ചെയ്യും പിന്നീട് ഇതിൻ്റെ അകത്ത് നല്ല രീതിയില് എല്ലാ കാര്യങ്ങളൊക്കെ പറ്റും മാധ്യമങ്ങളിലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും മലയാള ഭാഷയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട്